ഇപ്പോൾ നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദ സഞ്ചാര പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് ഇപ്പം വിനോദസഞ്ചാരികൾക്ക് വരാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ ഇവടെയുണ്ട് ഇപ്പോൾ കക്കയം ഡാമ് പിന്നെ തുഷാരഗിരി വാട്ടർ ഫാൾസ് ഇപ്പോൾ നമ്മുടെ അവടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ അവടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടികളില്ലാണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പം അല്ലാത്ത സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ നമ്മൾക്ക് ബീച്ചിൽ പോയിട്ട് അവിടെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബീച്ചിൽ നമുക്ക് അല്ലാണ്ട് തന്നെ പരിപാടികളില്ലാണ്ട് തന്നെ നമുക്ക് പോയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള വികസനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ അവിടെ ഇരിക്കാനും നമ്മൾക്കിപ്പം വെറുതെ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾക്കവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് റെസ്റ്റെടുക്കണമെങ്കിലും ഇപ്പം അവിടെ അങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ചിൻ്റെ ആ സൈഡിലൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കുകയാണ് ബീച്ചിൽ പല രീതിയിലുള്ള പരിപാടികൾ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു പരിപാടി സാംസ്കാരിക പരിപാടികളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബീച്ചിലൊക്കെ നടക്കും